ജ്യോതിശാസ്ത്രം സാങ്കേതിക ശാസ്ത്രം തന്നെ അന്ന് പലർക്കും തോന്നാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിത്തിൽ ഈ ജ്യോതിശാസ്ത്രം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതല്ല ഇതിന് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായ പരിശോധനയും തെളിവും ഒന്നുമില്ല പിന്നെ രണ്ടാമത് ജാതകത്തിലെല്ലാം കൃത്യമായി പ്രവചിക്കുന്നു എന്ന ഇതാണ് രണ്ടാമത്തെ തെറ്റി ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവികൃതമായി അറിയാം എന്നത് ഒരു തെറ്റിധാരണ മാത്രമാണ് ഈ ജ്യോതിഷം വളരെ പൊതുവായതും പലവട്ടം എല്ലാവരേയും ബാധിക്കുന്നത് പോലെയുള്ളവയും ആണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ ജാതകം നോക്കിയിട്ട് അ ഓരോ തെറ്റിധാരണയെല്ലാം നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്

ഈ ശനിയും രാഹുവും എല്ലാം വെറും പ്ലാനറ്റുകൾ മാത്രമാണ് ദൂരെയുള്ള വസ്തുക്കളായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ഇവയുടെ സ്ഥാനം നമ്മുടെ ഭാഗ്യത്തെ നിശ്ചയിക്കപ്പെടുന്നില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്